ആ ഹലോ ഗുഡ് മോണിംഗ് ആരായിരുന്നു ആ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ മാഡം ആ മേഡം മേഡമത് കറകറ്റായിട്ട് ചെക്ക് ചെയ്തായിരുന്നോ അത് അവർ അവർ ഇത് തന്നെയാണോ പറഞ്ഞത് അവരെന്നാ പറഞ്ഞത് ആ മേഡം ഇപ്പോഴൊരു ഒന്ന് വെയിറ്റ് ചെയ്യണെ മേഡമൊരു മാഡത്തിൻ്റെ ഫോൺ നമ്പറൊന്ന് പറയാമോ നമ്മുടെ ഈ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പരൊന്ന് പറയാമോ ആ നയൺ ഡബിൾ ഫോർ ആ സവൻ ഡബിൾ ഫൈവ്

സവൻ എയ്റ്റ് ഓക്കെ മാഡം ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇൻഫോം ചെയ്യാമേ ആ ഹലോ മേഡം ആ മേഡം ഞാൻ ചെക്ക് ചെയ്തു ക്യാഷ് ഇന്നലെ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ഡെബിറ്റായെന്നാണ് കാണിക്കുന്നത് ആ ആ പറഞ്ഞോ പറഞ്ഞോ മാഡം അതെ ബാങ്കിൽനിന്ന് ആ ബാങ്കിൽനിന്ന് ട്രാൻസ്ഫറായെന്നാണ് കാണിക്കുന്നത് ആ ഡെബിറ്റായെന്നാണ് കാണിക്കുന്നത് ആ ആ മാഡം ഒന്നുകിൽ നമ്മുടെ സെർവറിൻ്റെ എന്തേലും ഇഷ്യു ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ഇഷ്യു ആയിരിക്കും നമ്മൾ ഞാനെന്തായാലും ആ അല്ല മാഡം ഇത് ആ ഇത് സെർവറിൻ്റെ ഇഷ്യുവാണ് മാഡം ഞാൻ ചെക്ക് ചെയ്തിട്ട് ഓ ഓ നോക്കാം മേഡമൊരു കാര്യം ചെയ്യണം ഇങ്ങനെ വരുകയാണെങ്കിൽ നമ്മൾ ഏഴ് ദിവസമാണ് ഒരു വാലിഡിറ്റി പറഞ്ഞേക്കുന്നത് ഏഴു ദിവസത്തിനകത്ത് ഫണ്ട് റീഫണ്ടാവുന്നതാണ് ആ മേഡം അപ്പം ഒരു ഏഴ് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യണം ഏഴ് ദിവസത്തിനകത്ത് പൈസ റീഫണ്ടായില്ലെങ്കിൽ

ആ മേഡം അവരോടത് പറഞ്ഞ് പറയാനേ പറ്റത്തുളളൂ അവർക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് സാധാരണ വരുന്ന ഒരു ഇഷ്യുവാണ് ഏഴ് ദിവസം കഴിഞ്ഞും റീഫണ്ടായില്ലെങ്കിൽ മേഡം ഇതിപ്പം നമുക്ക് വേറെ ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല ഏഴ് ദിവസം ഏഴു ദിവസത്തിനകത്ത് റീഫണ്ടായില്ലെങ്കിൽ മേഡം ഒരു റിട്ടേൺ പരാതി നൽകുകയോ അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ വരികയോ ചെയ്യണം അതേ പറ്റത്തുള്ളു ആ എന്തായാലും അങ്ങനെ പോവത്തില്ല മേഡം ഏഴ് ദിവസത്തിനകം എന്തായാലും റീഫണ്ടാവും

ഓക്കെ മാഡം താങ്ക് യു